ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കായിക വിനോദങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലായിട്ടും കാണുന്ന കായിക വിനോദം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഫുട് ബോൾ അങ്ങനത്തെ ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ കാണുന്നേ പിന്നെ അത്ലറ്റിക്സ് ഓട്ടത്തിൻ്റെ ഉണ്ടാകും പിന്നെ പറയുകയാണെങ്കിൽ ഹോക്കി ടെന്നീസ് ടേബിൾ ടെന്നീസ് പിന്നെ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഗെയിംസ് ഇപ്പോഴും ഇന്ത്യയിലുള്ളവർ കാണുന്നവർ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ കാണുന്നത് ഇതൊക്കെയാണ് പിന്നെ ഇതൊക്കെ കളിക്കാൻ തന്നെ ഇപ്പോൾ ഒരുപാട് അതായത് ഓട്ടത്തിലൊക്കെ ആണെങ്കിൽ പി ടി ഉഷ എന്നൊക്കെ പറയുന്ന ആൾ ഭയങ്കര വലിയ ഫെയ്മസ് ആയ അത്ലറ്റിക് ആണ് പിന്നെ ക്രിക്കറ്റിൽ അതിൽ ഇതിലൊക്കെ ആയിട്ട് സ്പോർട്സിനും കുറേ ഇതുണ്ട് കായിക വിനോദങ്ങളിൽ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ എം എസ് ധോണി ഉണ്ട് വിരാട് കോഹ്ലി ഉണ്ട് സച്ചിൻ ഉണ്ട് പിന്നെ ഐ എം വിജയൻ പിന്നെ റൊണാൾഡോ മെസ്സി പിന്നെ നെയ്മറ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ കായിക വിനോദത്തിൽ തന്നെ ഇതുപോലെ ഒരുപാട് ഫെയ്മസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് പിന്നെ ഇതിനൊക്കെ കായിക വിനോദത്തിലൊക്കെ നല്ലവണ്ണം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേരും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയാം